കോഴിക്കോട് ജില്ലയിൽ എന്ന് പറയുമ്പം പലതരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ഇപ്പം പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്നവർക്കാണെങ്കിൽ പല തരത്തിലുള്ള കോഴ്സുകളുണ്ട് ആ ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ പ്ലസ് ടുക്കൊക്കെ നല്ല മാർക്കോടെ നിൽക്കുകയാണെങ്കിൽ ഏതെങ്കിലും കോളേജിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അഡ്മിഷൻ കിട്ടും ഇല്ലെങ്കിൽ നമ്മൾ ഫണ്ട് കൊടുത്ത് അങ്ങനെയൊക്കെ കയറണമായിരുന്നു പിന്നെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാലും അതിലൂടെ അവർക്കും പല തരത്തിലുള്ള ലാഭങ്ങളുണ്ട് ചിലപ്പം ചില കോളേജുകളിലുണ്ടാകും നല്ല രീതിക്ക് പഠിക്കുന്നവർക്കും പിന്നെ പഠിക്കാനുള്ള സാധനങ്ങൾ കൊടുക്കും ബുക്ക് കൊടുക്കും പിന്നെ ഈ ലാപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കും പിന്നെ നല്ല രീതിക്ക് പഠിച്ച് നിൽക്കുന്നവർക്കാണെങ്കിൽ ഇത്ര തൊണ്ണൂറു ശതമാനത്തിന് മുകളിൽ മാർക്കുണ്ടെങ്കിൽ അവർക്ക് സ്കോളർഷിപ്പ് കിട്ടും അതിലൂടെ അവർക്കൊരു വരുമാനം പോലെയാണ് അതിലൂടെ അവർക്ക് ഫണ്ട് അടക്കാം പിന്നെയെന്ന് പറയുമ്പോൾ ചില ഇതുണ്ട് ആറ് മാസം കൂടുംമ്പം ഫണ്ടടച്ച് നമുക്കിങ്ങനെ ഇതാക്കണ്ടത് ഈ ഫീസെന്ന് പറയുമ്പം ഒരു ആറ് മാസം അങ്ങനെയൊക്കെ ആയിരിക്കും ചിലതെന്ന് പറയുമ്പോൾ ഒരു വർഷം കൂടുമ്പോളായിരിക്കും ചിലപ്പം ഇത്ര രൂപാ ഫീസ് നമുക്ക് കെട്ടി വെക്കേണ്ടത് അതൊക്കെയാകുമ്പോൾ നമുക്ക് ഭയങ്കര ഇതാണ് പിന്നെ പല തരത്തിലുള്ള ഇതും ഉണ്ട് കുറേ കോഴ്സുകളുണ്ട് പ്ലസ് ടു കഴിഞ്ഞവർക്കും പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ പല തരത്തിലുള്ള കോഴ്സുകളിപ്പം കോഴിക്കോട് ജില്ലയിൽ ഭയങ്കരമായിട്ട് ഇതാകുന്നുണ്ട്